ഹലോ കെ എസ് ഇ ബി ആണോ ആ ഞാനേ ഇവിടെ തോപ്രാംകുടി കരിക്കല്ലിൽ നിന്നാണേ വിളിക്കുന്നത് ഇവിടെ കൊല്ലങ്കുളം റൂട്ടില് നമ്മള് കറണ്ടില്ലായിരുന്നു എന്ത് പറ്റിയതാണെന്ന് അറിയാമോ ഓ ടച്ച് വിട്ടതാണോ എപ്പഴത്തേന് വരുവായിരിക്കും ആ കറണ്ട് പോകുമെന്ന് നേരത്തെ അറിയിച്ച മെസേജ് ഒന്നും വന്നില്ലല്ലോ ആ ആ ഓക്കെ ഓക്കെ കാരണം നാളെ എക്സാമാണേ നമുക്ക് കുറെ പ്രീപെയർ ച്ചെ സോറി പ്രീപെയർ ചെയ്യാനുണ്ടേ അതുകൊണ്ടാണേ അപ്പം അതൊന്ന് പെട്ടെന്ന് ഒന്ന് സെറ്റാക്കി വിടുമോ മൂന്ന് മണിയാകുമ്പത്തേന് വരുവോ കറണ്ട് ആ ഓക്കെ താങ്ക്യൂ താങ്ക്യൂ താങ്ക്യൂ